എൻ്റെ സ്റ്റവ്വ് പ പഴയ സ്റ്റെ സ്റ്റീൽ സ്റ്റവ്വ് ആയിരുന്നു അത് കത്താതെയൊക്കെ വന്നപ്പോൾ ഞാൻ കടയിൽ പോയി പുതിയ ഒരു നല്ല ഗ്ലാസ് ടോപ്പിൻ്റെ ഒരു സ്റ്റവ്വ് വാങ്ങിച്ചു അതിന് മൂന്ന് ബർണർ ഉണ്ട് നല്ല ബർണർ ആയിരുന്നു നല്ലതായിട്ട് എനിക്ക് എളുപ്പം എളുപ്പം പാചകങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത്തിരി താമസിച്ചായാലും എഴുന്നേറ്റാൽ മൂന്ന് അടുപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓഫീസിൽ പോവാനായിട്ട് സാധിക്കും ഭക്ഷണങ്ങളൊക്കെ നേ എത്രയും വേഗത്തിൽ തന്നെ എനിക്കത് പാചകം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ എ എല്ലാ ദിവസവും രാ രാത്രി കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ഗ്യാസ് സ്റ്റവ്വ് എല്ലാം നല്ല വൃത്തിയാക്കി വെച്ച് എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ കിടക്കുന്നത് രാ രാവിലെ എനിക്ക് സ്റ്റവ്വ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് ആ ഗ്യാസ് സ്റ്റവ്വ് കാണുമ്പോൾ തന്നെ എനിക്ക് മൂന്ന് അടുപ്പും നല്ല ഭംഗിയായിട്ട് കത്തി കത്തുന്നത് കൊണ്ട് എനിക്ക് ആഹാ ആഹാരം വയ്ക്കാൻ എത്രയും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നു